എനിക്ക് ദക്ഷിണേന്ത്യൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനാണ് ഇഷ്ട്ടം അതായത് ചോറ് കറികള് എല്ലാം അതും ഞാൻ ദക്ഷിണേന്ത്യയിലാണ് ജീവിക്കുന്നത് അത് കൊണ്ട് ആ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനാണ് എനിക്ക് താത്പര്യം മാത്രമല്ല അതിനോട് കൂടി അതുണ്ടാക്കാനൊക്കെയാണ് എൻ്റെ അമ്മയും എൻ്റെ രക്ഷിതാക്കളും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അതിന് എനിക്ക് താത്പര്യവുമുണ്ട് അത് എളുപ്പവുമാണ് വളരെ എളുപ്പവുമാണ് ചോറ് കറികൾ ഉപ്പേരി തീയൽ രസം പപ്പടം അച്ചാർ എന്നിവയെല്ലാമാണ് ദക്ഷിണേന്ത്യൻ ഫുഡുകൾ അതേപോലെ ഇഡലി ദോശ ഉപ്പ്മാവ് പുട്ട് നൂലപ്പം ഇടിയപ്പം അപ്പം എന്നീ വസ്തുക്കളെല്ലാം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണേനും അത് വളരെ വേഗം ദഹിക്കുന്ന ഭക്ഷണവുമാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ഇത്തരത്തിലുള്ള പാചകം ചെയ്യാനാണ് എനിക്ക് താത്പര്യം